ആ ഞാനിത് കോഴഞ്ചേരിയിൽനിന്ന് വിളിക്കുകയാണെ ഞാൻ ഇവിടെ ഒരു ഓഫീസിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നെ അവിടെ എന്തൊക്കെ ഐറ്റംസാ ഉള്ളത് ഒരു സ്കൂളിൻ്റെയാണെ ആ വേണം ട്രാൻസ്പറൻറ് ആയിട്ടുള്ളതും അല്ലാത്തതും

പേപ് ആ പേപ്പറ് ടാഗ് ചെയ്യാനുള്ള ടാഗ് ക്ലിപ്പ് ആ ആ അതും ഉണ്ടല്ലേ ആ അതും ഞങ്ങൾക്ക് വേണ്ടിവരും അത് ഞാൻ അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് പറയാം ഇപ്പം ഇപ്പം എന്തൊക്കെയാ പിന്നെ നമുക്ക് എന്തൊക്കെയാ വേണ്ടേ ആ ചോക്ക് വേണം ആ ആ ഇതിന് മൊത്തം എത്ര ചെലവാകും നമ്മൾ ഈ ഒരു അത് ഞങ്ങൾ ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും കുറച്ചുതരത്തില്ലേ അതൊക്കെ എത്രയാകും പേന ഏതൊക്കെ കമ്പനി പേനയുണ്ട്

നമ്മൾ ബൾക്കാ ആയിട്ടാ എടുക്കുന്നത് അപ്പം വില ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം മ്മ് ആ അത് വേണം അത് വേണം

ഇത് മൊത്തത്തിൽ ഒരു എത്ര രൂപ ആകും ആ ഓക്കെ അപ്പം ഞാൻ ആ ഇത് കോഴഞ്ചേരിയാ ഇത് ഈ കട എവിടെ ആയിട്ടാ വരുന്നത് ആ ശരി ശരി ഓക്കെ